നമസ്ക്കാരം എൻ്റെ പേര് ശ്രീരാം എന്നാണ് അപ്പോൾ ഞാനൊരു ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ലാസ്റ്റ് ടൈം ഞാൻ തൃശ്ശൂരേക്ക് വിളിച്ചായിരുന്നു അപ്പോൾ ഒരു രവീന്ദ്രൻ എന്നു പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനായിരുന്നു ഡ്രൈവറുണ്ടായിരുന്നത് അപ്പോൾ ആൾ നല്ല കറക്റ്റ് ടൈമിൽ എത്തുമായിരുന്നു പിന്നെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ എനിക്ക് പാലക്കാടേയ്ക്കൊരു യാത്ര പോകാനുണ്ട് അപ്പോൾ ആ ചേട്ടനെ തന്നെ കിട്ടുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം അയാളുടെ പെരുമാറ്റവും യാത്രക്കാരോടുള്ള ആ ഒരു സമീപനവുമൊക്കെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കും അതെ എൻ്റെ ഫാമിലിക്കും അതെ അപ്പോൾ മാക്സിമം ആ ആളെത്തന്നെ കിട്ടുമോയെന്നു നോക്കണം പിന്നെ വേറെ ടൈമിൽ ഞങ്ങൾക്ക് വെയിറ്റിങ്ങും എല്ലാം ഉള്ള നല്ലൊരു രീതിക്കാണ് ഒരു ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഫെയറും കൊടുക്കുന്ന ആ റേറ്റും ഇതൊക്കെ ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഡ്രൈവർ തന്നെ തരണം പിന്നെ കാറും അതെ കാർ തന്നെ മതി കാരണം ഞങ്ങൾ ആ കാറിൽ വളരെ കംഫോട്ടബിൾ ആണ് യാത്ര ചെയ്യാനും എല്ലാം വളരെ സൗകര്യപ്രദമാണ് നല്ല യാത്ര സൗകര്യമുള്ള ഒരു വണ്ടി തന്നെയായിരുന്നു അത് മൊത്തത്തിൽ രണ്ട് പേരും അതേ കാറും അതെ ആ ചേട്ടനും അതെ എന്തുകൊണ്ടും ഞങ്ങൾക്കൊരു ഒരു യാത്ര ചെയ്യുമ്പോൾ ആ ഒരു വളരെ മടുപ്പും ആ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് അത്ര ഫീൽ ചെയ്തില്ല അപ്പോൾ ഈ വരുന്ന ഇരുപത്തിയൊന്നാം തീയതിക്കൊരു ബുക്കിംഗ് നൽകാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പോൾ ശരി